ഇപ്പോൾ സ്റ്റാമ്പുകൾ ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്താ ആൻറ്റീക് പീസുകളൊക്കെ കളക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഓൾഡ് പഴയ കാലത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വ്യക്തവും കൃത്യവുമായിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം പിന്നെ കുറെ പേര് ഇത് ബിസിനസായിട്ട് കണ്ട് കൊണ്ട് നടക്കുന്നവരുമുണ്ട് ഈ ഓൾഡ് ആൻറ്റീക് പീസുകളൊക്കെ എടുത്തിട്ട് അത് സെയിലെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക കുറെ പഴക്കമുള്ള സാധനങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക ഫീൽഡില് നല്ല വിലയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കുറെ ആൾക്കാര് അത് ബിസിനസായിട്ട് കരുതുന്നവരും ഉണ്ട് അപ്പോൾ ആൻറ്റീക് പീസുകള് കൊണ്ട് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഇപ്പോൾ എന്താ പറയുക കോയിൻസ്ന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതുതന്നെയാണ് ഫിലിപ്പീൻസ് അങ്ങനുള്ള ഓരോ എന്താ പറയുക ഓരോ ടൈപ്പ് ഓരോ സ്ഥലത്തെ ഓരോ കോയിൻസിനും അതിൻറ്റേതായ മൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ട് പണ്ട് കാലത്ത് പഴ പഴയ രാജാക്കന്മാരൊക്കെ യൂസെയ്തോണ്ടിരുന്ന കോയിൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പൊതുവെ നല്ല വെല കിട്ടുന്നതായത് കൊണ്ട് കുറെ ആൾക്കാരത് എന്താ പറയുക വിൽക്കാനും വില്പനയ്ക്കായിട്ട് അന്ന് പറഞ്ഞ ഒരു ജീവിത മാർഗമായിട്ട് യൂസെയ്യുന്നവരുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇപ്പം കളക്ട് ചെയ്യുന്നേന്ന് പറഞ്ഞ ഓൾഡ് പീസുകളൊക്കെ കളക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എന്താ പറയുക ചരിത്രവും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആൾക്കാര് അത് ശ്രദ്ധിക്കുന്നത് അപ്പം അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്